കോട്ടയം ജില്ലയിൽ എന്താ പറയാ ഇതുപോലെ പ്രാദേശിക ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും വരുന്നത് ബസ് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ പിന്നെ ഊബറ് ഇപ്പോൾ ടാക്സി പോലുള്ള ടാക്സികൾ ട്രെയിന് ഇതൊക്കെയാണ് മെയിനായിട്ടും ഗതാഗതത്തിനായിട്ട് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ പൊതുവെ വരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ദൈനംദിന ആൾക്കാരാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ രാവിലെ സ്ഥിരം ജോലിക്ക് പോയിട്ട് തിരിച്ച് വരാനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ബസിനെ തന്നെയാണ് കാരണം വണ്ടിക്കൂലിയും അതുപോലെ തന്നെ പോക്ക് വരവിൻ്റെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസം ഒരാൾക്കൊരു കോട്ടയം പോയിട്ട് ഇപ്പം പൊൻകുന്നത് ഉള്ള ഒരാൾക്ക് കോട്ടയം പോയിട്ട് വരണമെങ്കിൽ തന്നെ മിനിമം നൂറ് രൂപ ഇല്ലാതെ പറ്റത്തില്ല അപ്പം ആ ഒരവസ്ഥയിൽ ഇപ്പം ബസിനാണെങ്കിൽ പോലും അങ്ങനെ വണ്ടിക്ക് പോയാലും ഇത് തന്നാണ് അപ്പം വണ്ടിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്ന പ്രശ്നം ഉള്ളവരായത് കൊണ്ട് അവർ ബസിനാണ് പോവുന്നത് ചിലവ് ചുരുക്കാനായിട്ട് ബസിനാണ് പോവുന്നത് മിനിമം ഒരു നൂറല്ലെങ്കിൽ നമുക്ക് കോട്ടയത്ത് പോയിട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ആൾക്കാർ ഏറ്റോം കൂടുതൽ ആശ്രയിക്കുന്നത് ബസ് പോലുള്ള വണ്ടിയാണ് ബസിനെയാണ് ആശ്രയിക്കുന്നത് അല്ലാതെ കുറച്ച് ദൂരം ഉള്ളോരൊക്കെയാണ് അതായത് വീടിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഒരു ഒരു കിലോമീറ്ററ് രണ്ട് കിലോമീറ്ററൊക്കെ പോവുന്നവരൊക്കെയാണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള സ്വന്തം വാഹനങ്ങൾ അല്ലേ വണ്ടി വണ്ടികളിലും അതുപോലെ ബൈക്ക് കാറ് ഇതുപോലുള്ള അതിലൊക്കെ ആണ് ആൾക്കാർ കൂടുതലായിട്ടും പോകുന്നത് ആശയവിനിമയം നടത്തുന്നതിനായിട്ട് നമുക്ക് എന്താ പറയാ ഇപ്പം പഴയ പോലെ എസ് റ്റി ഡി ബൂത്തുകളൊന്നും ഇല്ല നമുക്കെല്ലാരുടെയും കയ്യിലും ഫോണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ പിന്നെ അല്ലാത്തത് ഇപ്പം മെയില് ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെ മെയില് അതുപോലെ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് എന്താ പാസ്സ്പോർട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പാസ്സ്പോർട്ട് കാര്യങ്ങൾക്ക് വേണ്ടീട്ട് നമുക്ക് നമ്മൾ ആശയവിനിമയത്തിന് നടത്തുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കമ്പ്യൂട്ടർ സെൻ്ററുകളുണ്ട് അത് കമ്പ്യൂട്ടർ സെൻ്ററുകളുള്ള സ്ഥലത്താണ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് നെറ്റ് നമുക്കിപ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ എല്ലാവർക്കും നെറ്റ് ഇല്ലെങ്കിലും വൈഫൈ പോലുള്ള കാര്യങ്ങൾ ഫ്രീ വൈഫൈ ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കുറെ സ്ഥലത്തൊക്കെ അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഏറ്റോം കൂടുതൽ നമുക്കിപ്പം പ്രധാനം മെട്രോ പോലുള്ള സംഭവം നമ്മുടെ ഈ ജില്ലയിൽ വന്നിട്ടില്ല അത് കൂടുതലും മറ്റുള്ള പിന്നെ ജില്ലയിലാണ് ഇപ്പം എറണാകുളം പോലുള്ള ജില്ലയിയിലാണ് മെട്രോ പോലുള്ള അപ്പോൾ മെട്രോ പോലുള്ള സംഭവന്നൊക്കെ പറയുമ്പോൾ എറണാകുളംകാർക്ക് പൊതുവേ വളരെ ഉപകാരപ്രദമാണ് കാരണം വളരെ ചാർജ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സോട് കൂടി അവർക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കോട്ടയം ജില്ലയിൽ അത് അത്രക്കുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വന്നിട്ടില്ല ആകാശപാത പോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പണികൾ ഇതുവരെ പൂർത്തി ആയിട്ടില്ല പൂർത്തി ആക്കുവാണെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് സീബ്രാ ലൈനിക്കൂടെ ക്രോസ് ചെയ്യുന്നേന് അപകടമായിട്ട് രീതിയിൽ എന്താ നടക്കുന്നതും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് സാധിക്കും